ഇപ്പഴത്തെ ബാങ്കിങ്ങ് സേവനം എന്തുകൊണ്ടും നമുക്ക് നല്ലതാണ് കാര്യം എപ്പഴും പൈസ കൊണ്ട് എടുത്ത് കൊടുക്കുക കാര്യം എന്ന് വച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബസ്സിൽ കുറച്ച് ബസ്സിലോ ട്രെയിനിലോ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പൈസയായിട്ട് പോകണമെങ്കിൽ ആ നമ്മൾ എത്തേണ്ട സ്ഥാനം എത്തുന്നിടം വരെ നമുക്ക് എന്തൊരു നമുക്ക് വ്യാകുലതയാണുണ്ടാവുന്നത് ഇപ്പോഴാണെങ്കിൽ എല്ലാം നമ്മുടെ വിരൽ തുമ്പിൽ സാധിക്കുന്നത് വളരെ അധികം നമ്മുടെ ഈ സാങ്കേതിക വിദ്യയുടെ ഒരു പുരോഗമനമാണ് പിന്നെ നമുക്ക് ആർക്കെങ്കിലും പൈസ ഇപ്പം ഈ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് കേരളത്തിൽനിന്നുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിലേക്കും നമുക്ക് പൈസ പൈസ അയക്കാനായിട്ട് സാധിക്കും അതൊക്കെ വളരെയധികം നമുക്ക് വളരെ അധികം പിന്നെ ഉപയോഗപ്രദമാണ് പിന്നെ നമുക്ക് പൈസ വേണമെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ വീട്ടിൽ ഇരുന്ന് തന്നെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവർക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നമുക്കത് കാര്യമായിട്ട് സാധിക്കും ഇങ്ങനെ ഉള്ള സാങ്കേതിക വിദ്യകൾ ഇപ്പഴും മനുഷ്യൻ്റെ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു സോഷ്യൽ ആയിട്ടുള്ള ഒരു അതായത് നമുക്ക് ബാക്കി ഉള്ള ആൾക്കാരെ കാണണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ അറിവിൽ പല റിട്ടേർ ചെയ്ത ആൾക്കാരും മാസം മാസം ബാങ്കിൽ ചെല്ലാറുണ്ട് അവരവിടെ ചെന്നിട്ട് ബാങ്കിൽ ചെന്നിട്ട് കുറച്ച് പൈസ എടുക്കുകയും പിന്നെ അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ചെറിയ ചായക്കടയിൽ പോയി ചായ കുടിച്ച് അവിടെ ഒരു ഒത്തുചേരൽ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് അതൊക്കെ നല്ലൊരു കാര്യമാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വയസ്സായി കഴിയുമ്പോൾ അവർക്കൊരു കൂട്ട് എന്നുള്ള നിലയ്ക്കലെങ്കിൽ ആ ഒരു പിന്നെ കൂട്ടായ്മ ഉണ്ടാക്കാൻ വേണ്ടി ചില പ്രായമായിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും അത് ഒത്തുചേരുന്നത് നല്ലതാണ്

മനുഷ്യന് അങ്ങനെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നതായിട്ട് അറിയത്തില്ല ആദ്യമേ ഉള്ള ഒരു ബുദ്ധിമുട്ടെ ഉള്ളൂ വേറെ അതിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ആശയക്കുഴപ്പങ്ങളൊക്കെ തീരാവുന്ന കാര്യങ്ങളെ ഉള്ളൂ ഇപ്പം നമുക്ക് എ ടി എം മെന്ന് പറയുന്നത് ആദ്യമേ ഒക്കെ ആൾക്കാർക്ക് വളരെ അധികം ബുദ്ധിമുട്ടായിരുന്നു കുറേ ആൾക്കാർക്ക് മാത്രമേ അതേ കുറിച്ചുള്ള സാങ്കേതിക വിദ്യകൾ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇന്ന് നോക്കുകയാണെങ്കിൽ എല്ലാ ആൾക്കാർക്കും എല്ലാ ആൾക്കാരുടെയിലും നമുക്ക് ഡെബിറ്റ് കാർഡും ഒക്കെ ഉണ്ട് അതുവഴി അവരുടെ കാര്യങ്ങൾ സാധിക്കുന്നുണ്ട് പൈസ പൈസ ഇപ്പം നമുക്ക് പൈസ ഇല്ലെങ്കിലും നമുക്കൊരു ഫോണ് എന്ന് പറയുന്ന സ്മാർട്ട്ഫോൺ ഉണ്ടെങ്കിൽ ആ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് വിരൽത്തുമ്പിൽ സാധിക്കുവാനായിട്ട് സാധിക്കും